നമ്മുടെ നാട്ടിൽ പാമ്പു കടി ഏറ്റാൽ അയാളെ നമ്മൾ ആദ്യം പ്രഥമ ശുശ്രൂഷ ആണ് ചെയ്യാറ് അയാളുടെ പാമ്പു കടിയേറ്റ സ്ഥലത്തിൻ്റെ കുറച്ച് മുകളിൽ ഒരു തുണി കൊണ്ട് ടൈറ്റിൽ മുറുകെ കെട്ടീട്ട് അയാളെ ഒരു സ്ഥലത്ത് ഇരുത്തും പിന്നെ അയാൾക്ക് കുറച്ച് വെള്ളം കൊടുക്കും എന്നിട്ട് അയാളെ ആദ്യം ആദ്യത്തെ ആൾക്കാരെല്ലാം വൈദ്യരടുത്താണ് ഇത് നട പാമ്പു കടിയേറ്റ ആളെ കൊണ്ടുപോകുക കൊണ്ടുപോകൽ എന്നാൽ നമ്മൾ ഇപ്പോൾ അതിന് മെനക്കെടാറില്ല അധികം നമുക്ക് പേടിയാണ് വൈദ്യരെ വൈദ്യരെയൊക്കെ ആദ്യം നമ്മുടെ ഈ നാട്ടിൽ തന്നെ ഒരു വൈദ്യർ ഉണ്ടായിരുന്നു അന്നേരം നമ്മൾ അയാളെടുത്താണ് ആയാളെടുത്ത് കൊടുത്തിട്ടാണ് ആളെ എൽപ്പിച്ചിട്ടാണ് ആൾക്കാർ പണ്ട് പണ്ടത്തെ കാലത്താണെ എന്നാൽ ഇപ്പോൾ അയാൾ മരിച്ചു പോയി കുറച്ച് കാലത്തിന് മുന്നേ അയാൾ മരിച്ചു പോയി അതിന് ശേഷം നമ്മൾ ഈ നാട്ടിലുള്ള ആൾക്കാരെല്ലാം ആരും ആയാളെടുത്ത് പോ മരിച്ചത് കൊണ്ട് നമ്മളെല്ലാവരും പോയത് ടൌണിൽ പോയിട്ട് ഹോസ്പിറ്റലിലാണ് കാണിക്കാറ് ആളെ ഇതുവരെ കടിയേറ്റിട്ട് ആരും മരിച്ച് മരിച്ചൊരു സംഭവം ഒന്നും ഉണ്ടായിട്ടില്ല മരിച്ച മരിച്ച ഒരിതൊന്നും ഉണ്ടായിട്ടില്ല എന്നാലും നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മൾ അയാളെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാറുണ്ട് ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ട് അവിടെ അയാൾക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടാണ് നമ്മൾ വേറെ എന്ത് കാര്യങ്ങളും ചെയ്യാറ് അയാൾ അയാളുടെ നമ്മളെ സ്വന്തം ആൾക്കാരെ പോലെ നമ്മൾ നോക്കൽ ഏതൊരാൾക്ക് പാമ്പു കടിയേറ്റാലും നമ്മൾ അയാളെ സ്വന്തം സ്വന്തത്തെ സ്വന്തം ആൾക്കാരെ പോലെ ആണ് നോക്കാറ് പിന്നെ പാമ്പു കടിയേറ്റാൽ വേറെ അങ്ങനെ വേറെ അങ്ങനെ ഒന്നും ഇല്ല ആദ്യം അയാൾക്ക് വെള്ളം കൊടുക്കും അയാൾക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കും